ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നൃത്ത പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ കാപ്പ കണ്ടിട്ടു ഉണ്ട് പിന്നെ നമ്മൾ എല്ലാ നൃത്തങ്ങളും കളിക്കും മോഹിനിയാട്ടത്തിന് എനിക്ക് കൂടുതൽ അറിയത്തില്ല എന്നാലും ഞാൻ കുറച്ച് നൃത്തം പഠിച്ചിട്ടുണ്ട് പിന്നെ പരിപാടി പങ്കെടുത്തിപ്പം നമുക്ക് വളരെ പിന്നെ എന്ന വച്ചാ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു എന്നുവച്ചാ മറ്റുള്ളവർ കളിക്കന്നനനുസരിച്ച് നമ്മൾ കളിക്കുവോന്നൊക്കെ ആയിരുന്നു പിന്നെ ഒത്തിരി പരിശീലനൊക്കെ ഇല്ലാതൊക്കെയായിരുന്നു ചിലപ്പോഴൊക്കെ കളിക്കാൻ പോയിരുന്നത് പിന്നെ നല്ല പോലെ പരിശീലിച്ചിട്ട് കുറെ കഴിഞ്ഞ് നന്നായിട്ട് കളിക്കേം ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ അനുഭവം എന്ന് പറയാനൊണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആദ്യം ഒക്കെ ശരീരൊന്നു ഇല്ലായിരുന്നു പിന്നെ ശരീരൊക്കെ വെച്ച് കഴിഞ്ഞപ്പം അതൊന്ന് വഴങ്ങാനൊക്കെ നമുക്ക് പാടായി പോയി അതിന് മുമ്പെക്കെ നമുക്ക് ഒരൊന്നാം ക്ലാസ് തൊട്ട് ഒരു ഏഴാം ക്ലാസ് വരെയൊക്കെ ബുദ്ധിമുട്ടില്ലാതെ കളിക്കാവായിരുന്നു പിന്നെ ഒരു പത്ത് കഴിഞ്ഞപ്പം ശരീരം ക്കെചിരി ശരീരം വെച്ച് കഴിഞ്ഞപ്പം നമുക്കത് നമ്മുടെ ശരീരം തന്നെ വഴങ്ങാതെയായി അപ്പം അതിനെ ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിട്ടെക്കെ പക്ഷേ സ്കൂളിൽ നൃത്ത പരിപാടികളി പങ്കെടുത്തപ്പം ചില ഭയങ്കര സന്തോഷായിരുന്നു അപ്പം അതുപോലെ പ്രൈസ് കിട്ടിയപ്പം ഭയങ്കര സന്തോഷായിരുന്നു ചില സമയത്ത് നമുക്ക് കിട്ടാതെയാകും അപ്പം എല്ലാം എല്ലാ അനുഭവം ഉണ്ട് സങ്കടം ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഒരു പ്രാവശ്യം കളിച്ചിട്ട് നന്നായി കളിച്ച് കിട്ടുവന്ന് പ്രതീക്ഷേൽ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ അന്ന് എ എനിക്ക് അല്ല കിട്ടിയത് വേറൊരാൾക്കാണ് കിട്ടിയത് അതിൽ എനിക്ക് വളരെ സങ്കടവും കുറച്ച് കാലം പിന്നെ ഞാൻ കളിക്കാതെ ഒക്കെ ഇരുന്നായിരുന്നു പിന്നെ ഇത അതല്ലല്ലോ ഒരു ഒരു പരിപാടി ഉണ്ടെങ്കിൽ ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല എന്ന വീട്ടിൽ എല്ലാരും പറഞ്ഞ് തന്നപ്പ പിന്നെ അതൊന്ന് ബോധവായി വളർന്ന് കഴിഞ്ഞപ്പോ പിന്നെ കൊറച്ചൂടെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് കളിക്കാൻ തുടങ്ങി അങ്ങനെ കൊഴപ്പല്ല നൃത്ത പരിപാടികളിലൊക്കെ പങ്കെടുക്കും അത് കാണുകയും ചെയ്യ കാണാനും ആസ്വദിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ശോഭനേടെ ക്ലാസിക്കൽ ഡാൻസ് പിന്നെ കാവ്യമാധവൻ്റെ ഡാൻസ് മഞ്ചുവാര്യരടെ ഡാൻസൊക്കെ ഞാൻ നല്ല പോലെ ഒത്തിരി കൂടുതലായിട്ട് ഞാൻ കാണാറുണ്ട് അപ്പം അത് ഞാൻ ആസ്വദിക്കാറും ഉണ്ട് അപ്പം അതുകൊണ്ട് നൃത്തം സ്കൂളിൽ മാത്രമല്ല പങ്കെടുക്കുകയും അത് കാണുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു അനുഭവമായിരുന്നു